പറയൂ എന്താ ഫുഡ് ഉള്ളത് ഇത് മാത്രെ ഉള്ളു പിടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്

തേങ്ങാ അങ്ങനെ ഒന്നും അരയ്ക്കുകയൊന്നും ഇല്ലേ തേങ്ങാ ഇടുകയൊന്നും ഇല്ലേ തേങ്ങാപ്പാലാണോ അതില് ജീരകമോ അങ്ങനെ വെളിത്തുള്ളി വെളുത്തുള്ളി അതെ കറി അതെ കറി എങ്ങനത്തെ കറിയാണ്

വറുത്തരച്ചതാണ് അ കറി

അതെ പിടിയും കൊഴിനേയും മതി തിങ്കളാഴ്ച്ചത്തേക്കൊന്ന് ചെയ്യാവോ അതെ വൈകുന്നേരം ആകുമ്പത്തേക്കും മതി നൂറ് പേർക്ക്

അ കൊണ്ടുവന്ന് തരണം എത്ര റേറ്റ് വരിക അതെ നൂറ് പേർക്കോ അത്രയും വരുവോ

കറി മാത്രമായിട്ടാണ് അ അതല്ല ഫ്രൈ വീട് മാനന്തവാടി ഞാന് ലൊക്കേഷൻ അയക്കാം അ എടുത്തോ നൂറെണ്ണം കേക്ക് വേണ്ട ലഡൂ മതി അ നൂറ് ഐസ് ക്രീം ആ വേണ്ട ഐസ് ക്രീം വേണ്ട

അതിൻ്റെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അ ഓക്കെ ആയിക്കോട്ടെ താങ്ക്യൂ